എനിക്കറിയാവുന്ന മറ്റു ഭാഷകളെ താരതമ്യം ചെയ്തു പറയാനാണെങ്കിൽ മലയാളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെത്ര മനോഹര അത്ര എളുപ്പമുള്ളൊരു ഭാഷ അല്ല മലയാളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സംസാരിക്കാന് അറിയാവുന്നവർ മറ്റെന്ത് ഭാഷയും സംസാരിക്കാന് പറ്റും അതാണ് മലയാളത്തിനൊരു പ്രത്യേകത അതായത് ഒരിക്കലും മലയാളമെന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലും ആ സ്പുടതയിലും സംസാരിക്കാന് പറ്റുന്നൊരു ഭാഷയല്ല മലയാളമെന്നു പറഞ്ഞാല് നന്നായി നന്നായി സംസാരിക്കാന് അറിയാവുന്നൊരാള്ക്ക് എവിടെ ചെന്നാലും നിൽക്കാന് പറ്റും മലയാളം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാരണം മലയാളമെന്ന് പറയുന്നത് അത്രയ്ക്കും സംസാരിക്കാന് ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് പച്ചമലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസാരിക്കാന് അത്ര എളുപ്പമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് മലയാളം സംസാരിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ടുതന്നെ മലയാളത്തെ മറ്റൊരു ഭാഷയായിട്ട് കമ്പയറ് താരതമ്യം ചെയ്യുകയാണെങ്കിൽ മലയാളത്തിന് മലയാളം ഒരുപടി മുകളില് തന്നെയാണെന്ന് വേണം പറയാന് കാരണം മറ്റെന്ത് ഭാഷ പഠിക്കുന്നതിലും ഏറ്റവും പാടായിട്ടുള്ളൊരു ഭാഷ മലയാളം തന്നെയാണ് ഇപ്പം ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പടി പറഞ്ഞു വന്നാലതങ്ങ് നമുക്ക് പഠിച്ചെടുക്കാന് പറ്റും പക്ഷെ മലയാളം പറയണമെങ്കിൽ നാക്ക് നല്ല സ്പുടത ഉണ്ടാവണം അതുപോലെ നമുക്ക് പറയാന് നല്ല എന്താ പറയുക മലയാളം അറിയാവുന്ന ഒരാൾ എവിടെ ചെന്നാലും നിൽക്കും നമുക്കിപ്പം അറിയാം എവിടെ ചെന്നാലും ഒരു മലയാളി കാണും അതുപോലെത്തന്നെ മലയാളം മലയാളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും നമ്മൾ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പല മറ്റ് പല ഭാഷ അറിയാവുന്നവര്ക്കിപ്പം നമുക്ക് ഹിന്ദിയാകട്ടെ ഹിന്ദി ഇപ്പം മലയാളം അറിയാം മലയാളം സംസാരിച്ച ഒരാള്ക്ക് മറ്റെന്ത് ഭാഷയും ഒരു പ്രശ്നമല്ല നമുക്ക് പഠിച്ചെടുക്കാം മലയാളികളെ സംബന്ധിച്ച് മലയാളം മറ്റൊരു ഭാഷ പഠിച്ചെടുക്കുകയെന്ന് പറഞ്ഞാല് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ മറ്റ് ഭാഷ സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാളം പറയുകയെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത്ര എളുപ്പമുള്ളൊരു പരുപാടിയല്ല മലയാളം പറഞ്ഞു പഠിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ മലയാളത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് തന്നെ മലയാളം ആയിരിക്കും എപ്പോഴും നമുക്ക് ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഇതിന് ഹിന്ദി എനിക്കറിയാം ഇംഗ്ലീഷറിയാം പക്ഷെ അതിനെ നമുക്കങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്കേറ്റവും ഉചിതമായി തോന്നുന്നത് എന്താണ് നമ്മുടെ മാതൃഭാഷ ആയിരിക്കും അതുകൊണ്ട് മറ്റുള്ള ഭാഷകളെ താരതമ്യം ചെയ്തുനോക്കുമ്പോള് എനിക്ക് മലയാള ഭാഷയാണ് എന്നും മികച്ചത് അത് പറയാതിരിക്കാന് പറ്റുന്നൊരു കാര്യമല്ല എപ്പോഴും നമ്മു ടെ ഭാഷ ആയിരിക്കും നമുക്ക് വലുത് അതങ്ങനെ തന്നെയാണ് എന്നെ സംബന്ധിച്ചും മലയാളം തന്നെയാണ് എനിക്ക് ഏറ്റവും മികച്ചൊരു ഭാഷയായിട്ട് തോന്നിയത് മറ്റ് ഏത് ഭാഷകളേക്കാളും സംസാരിക്കാനും മലയാളം അറിയാവുന്നത് കൊണ്ടുതന്നെ മറ്റൊരു ഭാഷ പഠിക്കാനും വല്യ ബുദ്ധിമുട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല മലയാളമാണ് എപ്പോഴും നല്ലത്